പത്രം വായിക്കാനായിട്ട് കുട്ടികൾക്ക് നമ്മൾ നേരത്തെ ചെറുപ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞു തന്നെ കുട്ടികൾക്ക് പത്രം നമ്മൾ വായിച്ചുകൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അവർ തന്നെ വായിക്കത്തക്ക രീതിയിലേക്കായി പിന്നെ ഈ പറയുന്ന രീതിയിലേക്ക് അവർക്ക് ചില സബ്ജെറ്റുകളെ മനസിലായിട്ടിലെങ്കിൽ ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ബാങ്കിങ് അങ്ങനൊക്കെയുള്ള മേഖലകൾ അവർക്ക് മനസിലായിട്ടില്ലെങ്കിൽ അവർ വായിച്ചതിന് ശേഷം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ആ രീതിയിലേക്കാണ് പിന്നെ ഇംഗ്ലീഷ് മലയാളം രണ്ട് പേപ്പറുകളും വായിക്കാനായിട്ട് പറയാറുണ്ട് ന്നെ അതിലൂടെ കൂടുതലറിവ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ലോകത്തെ കുറിച്ചുമൊക്കെ മനസിലാക്കിയെടുക്കാനായിട്ട് കൂടുതലായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉപദേശമാണ് അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അതുവെച്ച് അവരെ മിക്കവാറും ആ ഒരു രീതിയിലേക്ക് കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആ രീതിയിലാണ് നമ്മൾ പത്ര വായന വായനയുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ രാവിലെ തന്നെ അത് പേപ്പറ് വായിക്കുക പിന്നെ പേപ്പറ് വന്ന് കഴിഞ്ഞാലുടൻ തന്നെ വായിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് കാരണം ആദ്യം തന്നെ അതിൻ്റെ തന്നെ തുടക്കത്തിൽ തന്നെ അതൊരു ശീലമായിട്ടവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ അത് വായിക്കുന്ന രീതിയിലേക്ക് പോകണം അല്ലെങ്കിലെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ പേപ്പറൊക്കെ കിട്ടികഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ വായിച്ചില്ലെങ്കിൽ പിന്നീടത് നീക്കി വെക്കുന്നു നീക്കി വെച്ചുക്കഴിഞ്ഞാൽ അത് സ സാധാരണ ഗതിയിൽ വായിക്കാനുള്ളൊരവസരം പിന്നീട് ലഭിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ വായിക്കുക എന്നുള്ളൊരു സജഷനാണ് കൊടുക്കാറുള്ളത് അങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ അ ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും അവർക്കിഷ്ടപ്പെട്ട സബ്ജറ്റ് കാണും അതല്ലാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജറ്റ് ഉണ്ടെങ്കിൽ അതും വായിച്ച് ആ ഒരു രീതിയിലേക്ക് അറിവ് ലഭിക്കാൻ വേണ്ടി അതും വായിക്കുക എന്നുള്ളൊരു രീതീലേക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്